ഹലോ എടാ ഞാൻ ഈ സ്ഥലത്തുനിന്ന് സ്ഥലം മാറുകയാണേ അപ്പോള് എനിക്ക് അവിടെ എത്തിയതിനു ശേഷം ഒരു പാസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ തിരക്കിയപ്പോള് പറഞ്ഞത് പാസ്പോർട്ട് വിലാസം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻറ്റകത്ത് നമ്മുടെ ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞ പാസ്വേഡ് നമ്പരും ഐ ഡിയും കൂടെ കൊടുത്ത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോള് അങ്ങനെ ചെയ്താൽ നമുക്ക് അത് പാസ്പോർട്ട് വിലാസം അപ്ഡേറ്റ് ചെയ്തു കിട്ടുമോ ആവശ്യമായ കുറച്ച് രേഖകളും എന്തൊക്കെ രേഖകളാണ് നമ്മള് അവിടെ കൊടുക്കേണ്ടത് എന്തൊക്കെ രേഖകൾ കൊടുക്കണം എന്തൊക്കെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യണം നിനക്ക് ഇതിനെ പറ്റി വല്ലതും അറിയാമെങ്കിൽ ഒന്നു പറയാമോ